ഇന്ത്യയിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സിനിമകളിലും വാർത്തകളിലൊക്കെ കാണുന്നതുപോലെ ഗവൺമെന്റിന്റെ കീഴിലുള്ള ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളെല്ലാം വളരെ മോശമാണ് അതിലേക്കുള്ള ആവശ്യമായ ഫാക്കൽറ്റികൾ അതിനാവശ്യമായുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ പലയിടത്തും ലഭിക്കുന്നില്ലാ എന്നുള്ളതൊരു യാഥാർഥ്യമാണ് നമ്മുടെ പല കുഗ്രാമങ്ങളിലും അവർക്ക് പാവപ്പെട്ട ജനങ്ങൾക്ക് അവർക്ക് ഈ ഹോസ്പിറ്റലുകളിലേക്ക് ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത കുറവാണ് ആംബുലൻസുകളില്ല അതുപോലത്തെ സംവിധാനങ്ങളില്ല പല വാർത്തകൾ നമ്മള് കാണുന്നതാണ് ഓരോ കാട്ടുവാസികൾ അല്ല ആദിവാസികൾ അവർക്കു കിട്ടാതെ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് അപ്പോള് പല സിനിമകളിലും അതു പറയുന്നതു പോലെ തന്നെ പലയിടങ്ങളിലും വെറും രാഷ്ട്രീയ കോഴകളാണു നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ എൻ്റെ ചുറ്റുപാടിനനുസരിച്ചു നോക്കുകയാണെങ്കില് കേരളത്തിലാണെങ്കില് അതിൽ മറ്റു ഇന്ത്യന് സംസ്ഥങ്ങളില് വച്ചുനോക്കുമ്പോൾ വളരെ മുന്നിട്ടൊരു ഒരു സ്ഥിതിഗതിയിലാണ് കേരളത്തിലുള്ളത് ഇപ്പോള് കഴിഞ്ഞ കൊറോണ കാലത്ത് മികച്ച ഹെൽത്ത് കെയറായിട്ട് പറയപ്പെട്ടിരുന്ന ഒരു സംസ്ഥാനമാണ് ഒരു മോഡൽ ഒരു റോൾ മോഡലായി കണക്കാക്കാൻ പറ്റുന്ന ഒരു സംസ്ഥാനമാണ് കേരളം കേരളത്തിൻ്റെ ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളുമെല്ലാം നമ്മുടെ ഗവൺമെന്റും അതിനു വളരെ എന്തു ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ പഞ്ചായത്ത് പഞ്ചായത്ത് സംവിധാനങ്ങളാണെങ്കിലും നമ്മുടെ താലൂക്ക് സംവിധാനങ്ങളാണെങ്കിലും എല്ലാം ഒന്നിനൊന്നു മെച്ചമാണ് പക്ഷെ എന്നിരുന്നാലും ഒരു അൺ ഡെവലപ്ഡ് ആ അണ്ടർ ഡെവലപ്ഡായിട്ടുള്ള രാജ്യത്തിൻ്റെ ഒരു കുറവുകൾ എല്ലായിടത്തും കാണും ഇപ്പോള് എൻ്റെ നാട്ടിലുള്ള പഞ്ചായത്ത് ഹോസ്പിറ്റലിൽ അതില് താരതമ്യേനെ ഇൻഫ്രാസ്ട്രക്ച്ചർ കുറവാണ് ലഭ്യതയും കുറവാണ് കുറേ മരുന്നുകൾ പുറത്തുനിന്നു വാങ്ങേണ്ടിവരും അതുപോലെ പല ടൈമും ചെന്നാലും നല്ല തിരക്കായിരിക്കും നമ്മള് ക്യൂ നിന്ന് മടങ്ങേണ്ടി വരുന്നൊരു അവസ്ഥ അവസ്ഥാ വിശേഷം ഉണ്ടാവാറുണ്ട് പിന്നെ താലൂക്ക് ഹോസ്പിറ്റലിലാണെങ്കിൽ ചിലവെല്ലം വളരെ കുറവമാണ് നല്ല തുച്ഛമായ വിലയിൽ നമുക്ക് നമ്മുടെ ചികിത്സ നടത്താമെങ്കിലും നേടിക്കിട്ടാൻ വളരെ റിസ്ക്കാണ് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ നമ്മുടെ പ്രൈവറ്റായിട്ടുള്ള ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളെല്ലാം ഒന്നിനൊന്നു മെച്ചമാണ് എല്ലാം ഹൈ ക്വാളിറ്റിയാണ് നല്ല ഇൻഫ്രാസ്ട്രക്ച്ചറാണ് നമുക്ക് ആവശ്യമായ ലഭ്യതകളെല്ലാമുണ്ട് പക്ഷെ അതിനനുസരിച്ച് നല്ല കോസ്റ്റ്ലിയുമാണ് നല്ല പണം ചിലവുള്ള ഇടപാടുകളുമാണ് അതുപോലെ പല കേട്ടറിവുകളും മാത്രമുള്ള സംഭവങ്ങളാണ് പലയിടുത്തും തട്ടിപ്പുകൾ നടക്കാറുണ്ട് പിന്നെതുപോലെ തന്നെ മറ്റൊരു സംഭവമാണ് നമ്മുടെ ഇൻഷുറൻസ് ആരോഗ്യ ഇൻഷുറൻസൊക്കെ നടപ്പിലാക്കിയതോടെ പല പല പാവപ്പെട്ടുള്ള താഴെക്കിടയിലുള്ള ജനങ്ങൾക്കും അതു വളരെ ഉപകാരമാണ് ഇവര്ക്കു പ്രസവം നടത്തുമ്പോഴെല്ലാം ഒരു രൂപ കൊണ്ടു പ്രസവം നടത്താം അങ്ങനെ പല സ്കീമുകൾ അതിലൂടെ മുന്നിട്ടു വരുന്നുണ്ട് അതുപോലെ ഈ മെറ്റേണൽ ഡെത്ത് റേറ്റ് അതുപോലെ ചൈൽഡ് ഡെത്ത് റേറ്റൊക്കെ കുറയ്ക്കാം പലതരത്തിലുള്ള മുന്നോട്ടങ്ങ് ഇനിഷിയേറ്റീവ്സ് നമ്മളെ ആരോഗ്യ സംവിധാനങ്ങൾ മുന്നോട്ടു കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതൊരു വളരെ ഒരു സന്തോഷമായ അവസ്ഥാ വിശേഷമാണ്